ഇരുപത്താറ് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് അഞ്ച് അറുപത്തി ഏഴ് പതിനാല് നാല് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തൊന്ന് ഇരുപത്തിനാല് നാല് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തിപ്പത്ത് മതിയോ